ഹലോ മുട്ടത്തില് ഹോട്ടല് ഹലോ ആരാ പറഞ്ഞോളൂ ഓക്കെ ഓക്കെ എന്താണ് വേണ്ടത് എത്ര പേരുടെ ഭക്ഷണമാ അ ആ അപ്പോൾ ഏതു ബിരിയാണിയാണ് നിങ്ങൾക്ക് വേണ്ടത് അവിടെ ഇവിടെ മട്ടണ് ബിരിയാണിയുണ്ട് ചിക്കന് ബിരിയാണിയുണ്ട് പിന്നെ കുഴിമന്തിയുണ്ട് ഓ ഓക്കെ ഓക്കെ ആ അ മട്ടണ് ബിരിയാണി ഒരു പ്ലേറ്റിന് ഇരുന്നൂറ്റി എണ്പതു രൂപയാണേ

ബിരിയാണിയായിട്ടാണ് ഫ്രൈഡ് റൈസ് അല്ല ഫ്രൈഡ് റൈസ് ഉദ്ദേശിക്കുന്നൊണ്ടാ അതോ ബിരിയാണിയാണോ ആ ഫ്രൈഡ് റൈസ് ആണെങ്കില് കുറച്ചുകൂടെ കുറയും ഇരുന്നൂറ്റി അമ്പത് ഒള്ളു ബിരിയാണിക്ക് മട്ടണ് ബിരിയാണിക്ക് ഇരുന്നൂറ്റി എണ്പതും മട്ടണ് ഫ്രൈഡ് റൈസിന് ഇരുന്നൂറ്റി അമ്പതുമാണേ ഉള്ളതേ അ ഓക്കെ ഓക്കെ ഓക്കെ അമ്പതുപേര്ക്ക് ഉള്ളത് എന്നത്തേനാ വേണ്ടത് നാളെ എത്രമണിക്കത്തേക്കാണ് അവിടെ എത്തിക്കണോ നിങ്ങളുടെ സ്ഥല ഒരു നാലുമണിക്കത്തേക്ക് ഓ ഓക്കെ ഓക്കെ എത്തിച്ചോളാമല്ലോ പിന്നെ നിങ്ങളുടെ സ്ഥലവും ഇതുംകൂടി ഒന്ന് ഗൂഗിള് മാപ്പ് ഒന്ന് ഇട്ടു തരണേ

ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ആ നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവരുന്ന അമ്പതുപേരുടേത് നിങ്ങള്ക്ക് ഒരു അറുപതു പേര്ക്കോളം കൊടുക്കാന് സാധിക്കും മട്ടണ് ബിരിയാണി കുടിക്കാനായിട്ട് ഇല്ല ഇത് നമ്മുടെ ഫിക്സഡ് റേറ്റ് ആണ് പിന്നെ സ്പെഷ്യൾ ആയിട്ട് എന്തെങ്കിലും വേണോ ആത്രേയുള്ളൂ അല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു